എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടി വി പരിവാടിയാണ് മുൻഷി ആനുകാലികമായ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ എല്ലാ ദിവസവും

ഒരു ചിന്തനം നടത്തി അതിനെ വിമർ വിമർ വിമർഷ വിമർഷനാത്മകമായി നോക്കിക്കണ്ട് അതിലെ തെറ്റും ശരിയും മനസ്സിലാക്കി അത് ജനങ്ങളില് അതിൻ്റെ ശരിയായ ഭാഗത്തെ എത്തിക്കുന്ന ഒരു നല്ല പരിപാടിയായി എല്ലാ ദിവസവും കാണുന്നു